ഞാൻ ആദ്യം ഉപയോഗിച്ച ഫോണ് ലാന്റ് ഫോണായിരുന്നു ലാന്റ് ഫോണിന് ശേഷം പിന്നീട് മൊബൈൽ ഫോണാവുമ്പം ആദ്യ സമയത്ത് സാംസങ്ങിൻ്റെ വളരെ ചെറിയ രീതിയിലുള്ള ഒരു ഫോണായിരുന്നു അതുതന്നെ അതിനകത്തെ ആ വലിയ ആധുനിക സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു അതിന് ശേഷമാണ് ഇപ്പോൾ സ്മാർട്ട് ഫോണൊക്കെ ഉപയോഗിക്കുന്നത് ആദ്യത്തെ ഫോണും ആദ്യത്തെ മൊബൈൽ ഫോണുമായിട്ട് ഇപ്പോഴത്തെ ഫോണിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അതിനകത്തെ ജസ്റ്റ് വിളിക്കുവാനും അതുപോലെതന്നെ മെസ്സേജ് അയക്കുവാനും അതുപോലെതന്നെ തീയ്യതി അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നൊള്ളു ഇപ്പോൾ ഒത്തിരി ഒരുപാട് സാങ്കേതികമായിട്ട് ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ ഇതിനകത്ത് നെറ്റ് ഉപയോഗിക്കാനും എല്ലാ തരത്തിലുള്ള സിനിമ കാണാനും എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോഴത്തെ ഫോണുപയോഗിക്കാവുന്നതാണ് ആധുനിക ഫോണിലെ സാങ്കേതിക വിദ്യകളെ അത്ഭുതപ്പെടുത്തുന്നവയാണ് അവയെ അവയെ കുറിച്ചൊന്നും കൂടുതലായി ഉൾക്കൊള്ളാൻ തക്കവണ്ണമുള്ള അറിവ് എനിക്കില്ല എങ്കിലും ആദ്യം ഞാനുപയോഗിച്ച ഫോണും ഇപ്പോഴുപയോഗിക്കുന്ന ഫോണും തമ്മിൽ വളരെ അധികം വ്യത്യാസം ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്